ഹലോ ഇത് ഈസി മൊബൈൽ ഷോപ്പ് അല്ലേ ആ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി പോയിട്ടുണ്ട് അപ്പം അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് പേര് സ്വാതി എത്രയാണ് ഇത് കാസർഗോഡ് എത്രയാണ് പൈസ ആവുന്നത് ആ ആ ഫോൺ ചാർജ് നിൽക്കുന്നില്ല പിന്നെ നല്ലോണം ചൂടാവുന്നുണ്ട് ചാർജിൽ എത്ര വച്ചത് കൊണ്ട് ചാർജ് ആവാറില്ല

ആ ആ ഫോണിന് എത്രയാണ് റേറ്റ് ഇപ്പോഴത്തെ ആണോ ഓഫറില്ലേ ഓ ആ ആ ഈ ഫോൺ എക്സ്ചേഞ്ച് ആക്കി തരുന്നതാണോ

ആ ഫോണിൻ്റെ റേറ്റ് എല്ലാം അനുസരിച്ചിട്ട് നല്ല ഒരു കമ്പനി ഫോൺ ആണ് വേണ്ടത് വേണായിരുന്നു വേണായിരുന്നു

ആ ഇത് നല്ല ഫോൺ ആണ് അത് ചാർജ്ജ് നിൽക്കുന്നില്ല കുറേ ആയി ആ ഇല്ല കൊടുത്തിറ്റാല എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഒരു ഷോപ്പുണ്ട് ഇസി ഷോപ്പ് നല്ല ഒരു ഷോപ്പാണ് ഓഫറെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ അങ്ങനെയാണ് ഞാൻ കോൺടാക്ട് ആക്കിയത് ആ ശരി എന്നാൽ ഓക്കെ ഞാൻ വരാം